ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഗ്രാമങ്ങൾ വൈദ്യുതിയില്ലാത്ത സ്ഥലങ്ങൾ കുറവായിരിക്കും കാരണം ഇന്നത്തെ ഏ നൂറ്റാണ്ടിൽ എല്ലായിടത്തും വൈദ്യുതി അതുപോലെ ടെലിഫോൺ കാര്യങ്ങളൊക്കെ ഇന്ന് എല്ലായിടത്തും ഉള്ളതാണ് പിന്നെ കൃഷിയിടങ്ങളിൽ വൈദ്യുതി കൊണ്ടുവരികയെന്നു പറയുമ്പോൾ കൃഷി മെച്ചപ്പെടുത്താനും കുറേ ഡെവലപ്മെന്റ് ചെയ്യാനും അനിവാര്യ വൈദ്യുതി വൈദ്യുതി ഉണ്ടെങ്കിൽ കൃഷിയുടെ ഉല്പാദനവും എല്ലാം മെച്ചപ്പെട്ടു വരും വൈദ്യുതിയുണ്ടെങ്കില് കൃഷി കൃഷി ചെയ്യാനും ഒരു തൊഴിലാളിയുടെ ആവശ്യം ഇല്ലെന്നാണ് എനിക്കു പറയാനുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടം പല ടെക്നിക്കുകളും പല റോബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനനുകൂലമായ കാര്യങ്ങളൊക്കെ അപ്പോഴും വരുമെന്നാണ് എനിക്കു പറയാനുള്ളത് ഗ്രാമത്തിലായാലും പട്ടണത്തിലായാലും എവിടെയായാലും ഇന്നത്തെ കാലത്ത് ഈ കാലഘട്ടങ്ങളില് വൈദ്യുതി വളരെ അത്യാവശ്യമാണ് അനിവാര്യവുമാണ് ഗ്രാമങ്ങളിലെല്ലായിടത്തും വൈദ്യുതി കൊണ്ടുവരിക എന്നതും നല്ലൊരു തീരുമാനവുമാണ് കൃഷിടിയങ്ങളില് വൈദ്യുതിയുടെ സേവനമുണ്ടെങ്കില് അതിന്റെ ഉത്ഭവവും കൂടുകയും പിന്നെ കുഷികൾക്കു ചെയ്യുന്നതിന് അനിവാര്യമായ കാര്യങ്ങൾ കൊണ്ടുവരാനും വൈദ്യുതി ഉപയോഗപ്പെടും വൈദ്യുതി എല്ലാ സേവനങ്ങൾക്കും അനിവാര്യമാണ് കൃഷിയിടങ്ങൾ മാത്രമല്ല ഗ്രാമങ്ങളിലും എല്ലാ സേവനങ്ങൾക്കും ഇന്നത്തെ കാലത്ത് വൈദ്യുതി വേണം വൈദ്യുതി ഇല്ല എന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കമ്പനികളോ കാര്യങ്ങളോ ഇന്നീ ലോകത്തുണ്ടാവില്ല വൈദ്യുതിയുടെ ഉൽപ്പന്നങ്ങൾ വൈദ്യുതിയുടെ ഉപയോഗം മൂലമാണിന്ന് പലവിധ വൈദ്യുതി കമ്പനികളും കാര്യങ്ങളൊക്കെ നില നിന്നു പോകുന്നത് പണ്ടുകാലഘട്ടങ്ങളില് വൈദ്യുതി ഇല്ലായിരുന്നു അപ്പോള് അതിനനുസരിച്ചുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അതൊന്നും നമുക്കെവിടെ പോയാലും കാണാൻ പോലും കിട്ടില്ല ചില കാര്യങ്ങളൊക്കെ ചിലതക്കെ മ്യൂസിയത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം വൈദ്യുതി എന്നുവച്ചാല് കാലഘട്ടത്തിൽ അത്യാവശ്യമാണ് അനിവാര്യവുമാണ് ഒരു വീട്ടിൽ വൈദ്യുതിയില്ല എന്നുണ്ടെങ്കിൽ ഇല്ലാത്ത വീടുണ്ടാവില്ല ഇപ്പോള് വൈദ്യുതിയില്ലാത്ത വീട് ഈ ലോകത്തിപ്പോള് ഉണ്ടാവില്ല അപൂർവ അപൂർവങ്ങളില് എവിടെയെങ്കിലും ഉണ്ടോ എന്നല്ലാതെ അധികം കാര്യങ്ങളിലും ത്ത് വൈദ്യുതി ഉണ്ട് കൃഷിയിടങ്ങളിൽ വൈദ്യുതി കൊണ്ടുവരിക എന്നുള്ളതു നല്ലൊരു അഭിപ്രായവുമാണ് നല്ലൊരു കാര്യവുമാണ് കൃഷിയുടെ ഉല്പാദനത്തിനും എല്ലാത്തിനും അനിവാര്യമാണ് കറണ്ട് ഒരു